എന്താ ചെയ്യുക തീർച്ചയായിട്ടും ഞാനിതിന് ഇര ഇര ആയിട്ടുണ്ട് കാരണം ആരോഗ്യ മേഘല വളരേയധികം മോശപ്പെട്ടിട്ടാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത് എനിക്ക് തീരെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഈ ആരോഗ്യ മേനക മേഖല ഇത്രയും തരം താണിട്ട് ആണ് നിക്കുന്നത് കാരണം ഒരു കോവിഡെന്ന അസുഖം വന്നപ്പോൾ ആരോഗ്യം മേഖലയ്ക്ക് മേഖലകളിലാണ് കൂടുതലാൾക്കാര് സമീപിച്ചിരുന്നത് പക്ഷേ അവരൊന്നും ഒരു രീതിക്കല്ല ജെനങ്ങളെ നല്ല രീതിക്കല്ല നോക്കുന്നത് ജനങ്ങുടെ ആരോഗ്യം പോലും നോക്കാതെ പിന്നെന്തിനാണവര് കേന്ദ്രങ്ങള് പറഞ്ഞ് നിർത്തി അവിടെ നിൽക്കുന്നത് പിന്നെ ജനങ്ങളുടെ കാര്യം നോക്കാതെ അതോ ആരോഗ്യം ഒര് മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ് അതിനുള്ള കാര്യങ്ങൾ ഈ കേന്ദ്രങ്ങള് ചെയ്യണം ചെയ്യുന്നില്ല ഇതൊക്കെ വെറും ആരോഗ്യകേന്ദ്രമെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ലാതെ ആ ഒര് മേഘല എനിക്ക് ഒര് രീതിക്കും നല്ല രീതിക്കല്ല പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ച് ഞാൻ പറയുന്നത് പിന്നെ ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കണം ഒരു ആരോഗ്യത്തിന് ഒരു ജന ഒരൂ ആള് ഇങ്ങനാ ആ രോഗ്യത്തിലിരിക്കാം ജനങ്ങൾക്ക് പൊതുവേ ഈ അറിവില്ല അതിനെ പറ്റിയിട്ട് അപ്പം ആരോഗ്യത്തിലെങ്ങനെ ഇരിക്കാം എന്നുള്ള ക്ലാസ്സ്കള് കൊടുക്കണം അതും നല്ല ര രീതീയിൽ കൊടുക്കുന്നില്ല പിന്നെയാണെന്ന് ഉണ്ടെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ്ഡ് കാര്യങ്ങളൊക്കെ സപ്പ്ളിമെൻട്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം അതൊന്നുമില്ല അതൊന്നുമില്ലാതെ എത്ര ജെ എത്ര കുട്ടികളാണ് ഈ ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യ കുറവ് കൊണ്ട് അസുഖങ്ങള് ബാധിക്കുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്തെ ഒരു ആൾക്കാരാണോ ഈ ആരോഗ്യ കേന്ദ്രത്തില് ഉണ്ടാവല് അതുകൊണ്ട് പേഴ്സണാലായിട്ട് എനിക്ക് പറയാനുള്ളത് ആരോഗ്യകേന്ദ്രത്തില് ശെരിക്കും അവർക്കൊര് ക്ലാസ്സ് കൊടുക്കും എങ്ങനെയാണ് ആരോഗ്യം വളർത്തുക എങ്ങനെയാണ് ജനങ്ങളിൽ ആരോഗ്യം എത്തിക്കുക ആരോഗ്യത്തിനെപ്പറ്റിയുള്ള ക്ലാസ്സ്കളെത്തിക്കുക അങ്ങനെ ഉള്ള ഒക്കെ ഫസ്റ്റ് അവരോട് ഫസ്റ്റ് പറഞ്ഞിട്ട് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾക്കെത്തിക്കാൻ പറ്റുകയുള്ളു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം അത്രെ പറ്റി അത്രെ ഉളളൂ എനിക്ക് ആരോഗ്യ മേഘല അഴിമതികളെപ്പറ്റി പറയാനുള്ളത് പിന്നെ പണത്തെ ഒര് ശെരിക്കും ആരോഗ്യ മേഗ് മേഘലയിലേക്ക് കയറുമ്പം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആരോഗ്യത്തെപ്പറ്റി പറയാനറിയുന്ന ആൾക്കാരെ കോളിഫൈ ഉള്ള ആൾക്കാരെ കയറ്റണം അല്ലാതെ പൈസ മ് പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് കണ്ട ചാത്തപ്പനേയും പോത്തനേയൊന്നും ഈ ആരോഗ്യ മേഘലയിൽ കയറ്റിയിട്ട് കാര്യമില്ല അതൊന്നും ജനങ്ങൾക്ക് നല്ല രീതിക്കതൊന്നും ഇൻ ഇൻഫ്ലുവൻസ്സ് ചെയ്യാനും അവരെ എക്ക് കൊടുക്കാനും പറ്റില്ല